നമസ്കാരം സാറേ അതെയതെ അതെയതെ അതെയതെ ഞാൻ തന്നെ ഞാൻ തന്നെ ആ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ആ ആ ആ ആ ആ

ആ സാറപ്പോൾ എവിടെയാണ് പ്രോപ്പർ എവിടെയാണ് നാടെവിടെയാണ് ആ ആ ആ ദില്ലിയിലാണല്ലേ ആ അവിടെ സാറപ്പോൾ അവിടെ സെറ്റിൽഡ് ആയതാണല്ലേ ആ ആ ആ ആ അതേയതേ അതേയതേ ആ ആ ഇതിപ്പോൾ നമ്മുടെയിവിടെ പൂജ ഹോളിഡേയൊക്കെ വരാൻ പോവുകയല്ലേ ഇനിയിപ്പോൾ മഹാനവമി ആണിപ്പോൾ അടുത്തതായിട്ടിപ്പോൾ നമ്മുടെയിവിടെ വരുന്ന ഫെസ്റ്റിവൽ അതിനുമുമ്പ് ഓണം കഴിഞ്ഞു പിന്നെ അതിനുമുമ്പ് വിഷു കഴിഞ്ഞു പിന്നെയിപ്പോൾ ഈ മഹാനവമി ആ അതെയതെ പൂജയ്ക്ക് മറ്റേ ദുർഗ്ഗാഷ്ടമി പൂജ അങ്ങനെ ബുക്ക് വയ്ക്കലൊക്കെ ഉള്ള പൂജയൊക്കെ ഇല്ലെ ദുർഗ്ഗാഷ്ടമി പൂജയാണത് നമ്മുടെയിവിടെ പാലക്കാടിൽ ഇവിടെ നമ്മുടെ കൊടുന്നല്ലപ്പള്ളി അഗ്രഹാരത്തിൽ മഹാനവമി ആഘോഷമൊക്കെയുണ്ട് പത്തു പതിനഞ്ചു ആനയൊക്കെ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് പിന്നെ പാലക്കാട് ആഘോഷം അതെയതെ അത്യാവശ്യം വലിയ ഉത്സവമാണ് പാലക്കാട് നെമ്മാറ വല്ലങ്ങി വേലയൊക്കെ കേട്ടിട്ടുണ്ടോ ആ ഇവിടെ പാലക്കാട് കേരളത്തിലെത്തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടു ഉത്സവം നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് നമ്മുടെ ഈ നെമ്മാറ വല്ലങ്ങി വേല അതേയതേ അതേ ഏറ്റവും വലിയ ഉത്സവം തൃശൂർ പൂരമാണ് പക്ഷെ ഇത് മറ്റേ കരിമരുന്ന് പ്രയോഗത്തിൻ്റെയൊക്കെ വച്ചുനോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടൊക്കെ നടക്കുന്ന ഉത്സവം ആണ് അത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആയിട്ടാണ് നടക്കാറ് ഈ ഈ ആഘോഷം അതെയതെ ഇതിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു ഓണത്തിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു വള്ളംകളി ആലപ്പുഴായിൽ വള്ളംകളി ഉണ്ടായിരുന്നു ആഘോഷമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കേരളത്തിൽ പൊതുവെ ഇപ്പോൾ ഈ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് അതിപ്പോൾ ആ ഈ പാലക്കാടെന്നു മെയിനായിട്ട് ഈ നെന്മാറ വല്ലങ്ങി വേല പിന്നെയതുപോലെതന്നെ പാലക്കാടും തൃശൂരിനും ബോർഡറിൽ കിടക്കുന്ന ഉത്രാടത്തി മറ്റേ ഉത്രാളിക്കാവ് പൂരമൊക്കെ കേട്ടിട്ടുണ്ടോ ഉത്രട്ടാതിയല്ല ഉത്രാളിക്കാവിലെ ഉത്രാളിക്കാവ് വേല അതെയതെ

അതും ഇതുതന്നെ നല്ല വെടിക്കെട്ടും മറ്റേ ആനകളൊക്കെ ആയിട്ടുള്ള ഫെയ്മസ് ആയിട്ടുള്ള ഒരു അമ്പലമാണത് ഈ പാലക്കാട് ഈ ഈ രണ്ടു അമ്പലങ്ങളും നല്ല ഫേയ്മസാണ് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വാദ്യോപകരണത്തിൻ്റെ ആൾക്കാരും അതുപോലെതന്നെ ആനയും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എത്തിപ്പെടുന്ന വലിയൊരു ആഘോഷമാണത് പിന്നെയതുപോലെത്തന്നെ ചെറിയ ചെറിയ ആ എന്താണ് അതെയതെ പിന്നെയിവിടെ ഈ നാടൻകലാരൂപങ്ങൾ ഫെസ്റ്റിവലൊക്കെയുണ്ട് ഈ ഈ വേലകളൊക്കെ അനുബന്ധിച്ചു മറ്റേ ഈ പൊറോട്ടംകളി പൂരകളി അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് അതെയതെ ഇവിടെ നമ്മുടെ ഈ കൊളോക്കിയലായിട്ടുള്ള കുറേ ആൾക്കാർ ഈ നമ്മുടെ പാലക്കാടൻ ഭാഷയൊക്കെ ഉപയോഗിച്ചു നടത്തുന്നൊരു ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവലല്ല ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചു നടത്തുന്നൊരു ഒരു ഇതാണ് അത് ഈ സാറെ ഇപ്പോൾ ഈ മഴക്കാലം നമ്മുടെയിവിടെ ഈ ഇപ്പോൾ ജൂൺ ജൂലൈയൊക്കെ കഴിഞ്ഞു മഴ തുടങ്ങുന്നതുകൊണ്ടു നമ്മുടെയിവിടെ ഈ ഫെസ്റ്റിവൽ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഡിസംബർ കഴിഞ്ഞു ജനുവരിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെയിവിടെ തുടങ്ങും ആഘോഷങ്ങൾ തുടങ്ങും ആഘോഷങ്ങളല്ല പൂരങ്ങളും ഇതൊക്കെ തുടങ്ങും പിന്നെയങ്ങോട്ട് എട്ടു ഒമ്പതു മാസം ഫുൾ അങ്ങനെ പരിപാടികളായിരിക്കും അതിൻ്റെ ഇടയിൽ വിഷു വരും ഓണം ആ

വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒക്ടോബർ മാസം നമ്മുടെ ഇവിടെ കേരളത്തിൽ ഫേമസായിട്ടുള്ള വള്ളംകളി ഉണ്ട് ആലപ്പുഴയിൽ ഉണ്ട് അതുപോലെതന്നെ മറ്റേ അമ്പലപ്പുഴയിൽ വള്ളംകളി നടക്കുന്നുണ്ട് ആറന്മുള വള്ളംകളി നടക്കുന്നുണ്ട് അതിപ്പോൾ നിലവിലിപ്പോൾ ഇപ്പോൾ പറയാൻ പൂജയാണ് പിന്നെ കല്പാത്തി തേരൊക്കെയുണ്ട് അത് കേരളത്തിലെത്തന്നെ ഫേമസായിട്ടുള്ള ഒരു ഇതാണ് കല്പാത്തി തേര് കല്പാത്തി തേര് ഡിസംബർ ജനുവരിയിലായിട്ടാണ് തുടങ്ങുക കല്പാത്തി തേര് ഒരു പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയാണ് ആ ആ ആ ആ ആ അങ്ങനെയാണെങ്കിൽ സാർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അത് ഇപ്പോൾ ഇരുപത്തി ഈ മാസം തന്നെയാണ് ഈ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ വിസിറ്റിംഗ് കാർഡ് സാർക്ക് തരാം അപ്പോൾ സാർ വിളിച്ചിട്ടു വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ താമസവും നമ്മുടെയിവിടെ റെഡിയാക്കാം സർ എങ്ങനെയാണ് ഫാമിലിയായിട്ടു വരാനാണോ ആ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നമുക്കിവിടെ റൂമും ബാക്കിയുള്ളതൊക്കെ ഇതാക്കാം എന്നിട്ടു നമുക്കിവിടത്തെ ഓൾമോസ്റ്റ് അമ്പലങ്ങളെല്ലാം ഒന്നുപോയി സന്ദർശിക്കാം ആ സാറെ നമ്മളെ ഈ നമ്പറിലെ ഈ ഇതിലത്തെ രണ്ടാമത്തെ നമ്പർ കണ്ടോ സാറെ ഈ ഈ രണ്ടാമത്തെ നമ്പറിലേക്കു വിളിച്ചാൽമതി സാർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആ അങ്ങനെയാണെങ്കിൽ സാറ് സാർ ഇതിൽ വിളിച്ചാൽ മതി സാർ ഇതിൽ വിളിച്ചാൽ മതി സാർ ആ ആ ശരി സാർ